സഞ്ചരിക്കാന് സഹാ സഞ്ചരിക്കാന് സഹായിക്കുന്നത് എന്ന് പറയുന്നത്

അപ്പോൾ ഇപ്പം പ്രകൃതി മാത്രമല്ല ഇതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും തന്റെ ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഒരു കവി തന്റെ എഴുത്തിന് ആശയങ്ങള് കണ്ടെത്താറ് എന്നുള്ളതാണ് ഒരു വസ്തുത